ഹലോ മുരളി ഹോട്ടൽ അല്ലെ എനിക്ക് ഭക്ഷണം വേണമായിരുന്നു ഞാന് ഓര്ഡര് ചെയ്തല്ലോ ഇത് വരെ കൊണ്ട് വന്നില്ല ഞാന് ഒരുപാട് സമയം വെയ്റ്റ് ചെയ്യുവാണ് നിങ്ങളുടെ ഭക്ഷണം നല്ലതാണെന്നറിഞ്ഞു കൊണ്ട് തന്നെയാണ് ഞാന് വിളിക്കുന്നത് നിങ്ങളുടെ ഡെലിവറി സമയത്തിനു എത്തിച്ചേരത്തില്ലേ അതെന്താ പിന്നേ എത്താഞ്ഞത് ഇതിനു മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നല്ലോ ആ കൊണ്ടുവരുന്ന കൊച്ചനെ എപ്പഴും വരുന്ന സമയത്ത് വന്നില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ റെസ്റ്റോറന്റില് ഞാന് വിളിക്കുന്നതെന്ന് പറഞ്ഞാല് നിങ്ങളുടെ ഭക്ഷണം എനിക്ക് ഒരുപാടിഷ്ടമായത് കൊണ്ടാണ് സുഖവില്ലാത്ത ആളായത് കൊണ്ടാണ് അല്ലെങ്കില് ഞാന് തന്നെ വെച്ച് കഴിക്കുവല്ലോ ഓക്കേ ഉടനെ കൊണ്ടുവരണേ